ഹലോ നമസ്ക്കാരം ഞാൻ സ്റ്റെല്ലയാണ് സംസാരിക്കുന്നത് സാർ ഞങ്ങളൊരു രണ്ട് മാസം മുൻപേ ഒരു ടാൽക്കം പൗഡറിൻ്റെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ നിങ്ങളുടെ കമ്പനിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് രണ്ട് മാസം മുൻപേ ഓർഡർ ചെയ്ത സാധനം ഇന്നലെയാണ് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത് അ ഞങ്ങൾ അതെ ലേറ്റായിട്ടാണ് ഡെലിവറായത് പക്ഷേ ഞങ്ങൾ ഒരു മാസം ഒരാഴ്ച കൊണ്ട് ഡെലിവറാകുമെന്നു പറഞ്ഞാൽ സാധനമായിരുന്നു പക്ഷേ ഞങ്ങൾ അതിനിടക്ക് ഇപ്പം ഈ രണ്ട് മാസത്തിനിടക്ക് ഒരു മൂന്നാല് തവണ ഞങ്ങൾ വിളിച്ച് കസ്റ്റമർ കെയർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് കൂടി അന്വേഷിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല ഇല്ല ഇല്ല ഇല്ല പ്രോഡക്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ ട്രാക്കിങ് ഐ ഡിയോ അല്ലെങ്കിൽ നമ്മൾ കൺ സാറ്റിസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും നമുക്ക് കസ്റ്റമറിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലയില്ല നമ്മളത് കംപ്ലീറ്റായിട്ട് പറയുകയല്ല എങ്ങനെയാണെങ്കിലും അതൊരു കസ്റ്റമറിൻ്റെ റൈറ്റ്സാണ് നിങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുകയെന്നുള്ളത് അ നമ്മൾ നോക്കുമ്പോൾ അത് ഷിപ്പിങ്ങ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇത് ഏത് ഡെലിവറി ആൾക്കാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആര് വഴിയാണ് വരിക ഒന്നും നമുക്കറിയില്ല ക്യാഷ് ഓൺ ഡെലിവറിയല്ല ഞങ്ങൾ പൈസ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് പ്രോഡക്റ്റ് എത്തിയത് ഓക്കേ ഞങ്ങൾ ഓർഡർ ചെയ്തു രണ്ട് മാസമെടുത്തു ഓക്കേ അതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് അതെ അതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഇന്നലെ വന്ന ആ ഒരു പ്രോഡക്റ്റ് ആ ആ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ലീക്ക് ലീക്ക്ഡ് ആ ലീക്കായിരുന്നു അതിന് ഒരു ഡാമേജ് ഉണ്ടായിരുന്നു ഞങ്ങൾ അതു തിരിച്ച് അയക്കാൻ നോക്കിയപ്പോൾ അത് ഇല്ല ആ തിരിച്ചയക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങടടുത്ത് പറഞ്ഞത്

ഓക്കേ ആ എങ്കിൽ ആ ഡീറ്റെയിൽസൊന്ന് എനിക്ക് മെയിൽ ചെയ്യാൻ പറ്റുമോ ആ ആ ആ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ആ ഓക്കേ ആ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം സാറിൻ്റെ പേരെന്താണ് ഓക്കേ ഓക്കേ താങ്ക് യു ആ അതെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം മെ അതിൽ കയറി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം ഓക്കേ ഓക്കെ ഓക്കേ താങ്ക് യു അവ റിട്ടൺ ചെയ്യാൻ പറ്റില്ലേ ഓക്കേ ചെയ്തോളാം ഓക്കേ ചെയ്തോളാം ഓക്കേ താങ്ക് യു താങ്ക് യു